എനിക്ക് ഏറ്റോം ഇഷ്ടം പോകാൻ താൽപ്പര്യം മീൻസ് ഈ ചരിത്ര സ്ഥലങ്ങളിലായിരുന്നു നമുക്ക് പോകാൻ അത് കഴിഞ്ഞിട്ട് കടൽ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അതായത് ഇപ്പം ബന്ധു വീട്ടിലൊക്ക പോകാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നമുക്ക് നമുക്കട ചരിത്രമായ സ്ഥലങ്ങളിലൊക്കെ പോയി കാണുമ്പം അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായി സാധനങ്ങൾ ഇപ്പോഴത്തെ തലമുറക്ക് അത് മിസ് ഒരു ഒരു മിസ്സാവണൊരു സാധനമാണ് പണ്ടത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പം കാണാൻ കിട്ടുന്ന ഇപ്പം യന്ത്രങ്ങൾക്കടെ ഉപയോഗം വന്നതോടെ നമുക്ക് അത് കാണാൻ കിട്ടില്ല അപ്പം നമ്മൾ ഇങ്ങനത്തെ ചരിത്രമായ സ്ഥലങ്ങളിലൊക്കെ പോയി കാണുക അല്ലേ ചരിത്രമായ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ അതെല്ലാം കാണുക പണ്ടത്തെ യുദ്ധങ്ങൾ ഒക്കെയുണ്ടായ സ്ഥലങ്ങളൊക്കെ പോയി കാണുക ഇതൊക്കെ എനിക്ക് ഭയങ്കരമായ താൽപ്പര്യമുള്ള സ്ഥലങ്ങളാണ് അവിടെ പോയി കഴിഞ്ഞ ദിവസം കൂടി ഞാൻ പോയെ ഉള്ളു പിന്നെ അമ്മ വീട് ബന്ധുക്കടെ വീട്ടിലൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളൊക്കെ അടച്ച് കഴിയുമ്പോൾ നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോയി നമ്മൾ താമസിക്കും രണ്ട് ആഴ്ചയൊക്കെ നമ്മൾ വീട്ടിൽ പോയി താമസിക്കും അവിടെ നുമ്മ കളിക്കുകയും മുറ്റത്ത് മാവിലൊക്കെ മാങ്ങ നോക്കിയും അതുപോലെ നമ്മൾ ചേർന്നാലും നമുക്ക് സ്ഥലങ്ങളിലാണ് പിന്നെ യാത്ര പോകാൻ നമുക്ക് മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി യാത്ര പോകുക അങ്ങനൊക്കെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന സ് ഇതാണ് ബന്ധുക്കട വീട്ടിൽ പോകുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ചരിത്രമായ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുക പോകുക അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കാണുക അതൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പിന്നെ പിന്നെ ഫാമിലിയായിട്ട് പോവുക നമ്മൾ ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യുക അങ്ങനെയൊക്കെ കടലിലൊക്കെ നമുക്ക് തിരമാല നമുക്ക് ലൈഫ് ഒക്കെ ശരിക്കും നമുക്ക് മൈൻറ്റ് ഒക്കെ ശരിക്കും ഓക്കേ ആകും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പം മൈൻറ്റ് ഒക്കെ ഓക്കെ ആകും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പോയി കാണുക പിന്നെ മതപരമായ സ്ഥലങ്ങൾ നമുക്ക് അതേപോലെ ഇപ്പം ക്രിസ്ത്യാനികൾക്ക് യേശുവിനെയും പിന്നെ മുസ്ലിങ്ങൾക്ക് അവർക്കടെ റബ്ബെടെ ഖബറടക്കണ സ്ഥലങ്ങളിൽ പിന്നെ ഹിന്ദുക്കൾക്ക് അവക്കടെ സ്ഥലങ്ങളിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് അപ്പം അവിടെയൊക്കെ പോയി കാണുക നമുക്കട കാണുക അതൊക്കെ പോയി കുറച്ച് അറിവുകൾ നേടുക അങ്ങനെക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോയി കാണുക അതൊക്കെ നമുക്ക് നല്ല ഇതാണ് നമുക്ക് ഇതൊക്കെ ഒരിക്കലും മറക്കാൻ കിട്ടാത്ത സൗഭാഗ്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന ഇതുമാണ് സ് അപ്പം നമ്മൾ അത് മാക്സിമം യൂസ് ചെയ്യുക അങ്ങനെ ഇതൊക്കെ ചെയ്യുക അവിടെ പോയിട്ട് നമ്മൾ എന്താ പറഞ്ഞത് മൃഗങ്ങളെ കാണുക പല സൈസ് മൃഗങ്ങൾ പല സൈസ് പ്രാവുകൾ അങ്ങനൊക്കെ പോയി കാണുക ഒക്കെ പോയി കാണുമെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ പോയി കണ്ടിട്ടുമുണ്ട് എനിക്ക് നമുക്ക് അത് എൻ്റെ അനുഭവമാണ് ഇതൊക്കെ പോയി യാത്ര യാത്ര ചെയ്യുക അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവം കിട്ടുന്നൊരു സാധനമാണ് കടൽ പർവ്വതങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ പിന്നെന്താണ് പാ മതപരമായ സ്ഥലങ്ങൾ ബന്ധുക്കക്കടെ വീട് ഇവിടെയൊക്കെ പോകണത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ തലമുറ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നൊരു സ് സാധ്യത കൂടെ ഇപ്പോഴത്തെ തലമുറ അവിടൊന്നും പോകുന്നില്ല അപ്പം നമ്മൾ മാക്സിമം നമ്മൾ അങ്ങനൊക്കെ പോകാം മൈൻഡ് ഒക്കെ ഓക്കേ ആക്കുക